ഏറ്റവും കൂടുതൽ സ്റ്റിച്ച് തുണി തയ്ക്കുക എന്നത് നമുക്ക് ഡ്രസ്സ് നമുക്ക് മെറ്റീരിയലെടുത്ത് തുണി ചുരിദാറ് മെറ്റീരിയൽ ഒക്കെ എടുത്ത് ചുരിദാറ് തയ്ക്കാന്നാണ് ഏറ്റവും നല്ല നാം നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്നാ കൂടുതൽ ആളുകൾ നമ്മളിലേക്ക് വരുന്നത് തുണി ഇങ്ങനെ ചുരിദാറ് അതുപോലെത്തെ മെറ്റീരിലെടുത്ത് തുണിക്ക് തയ്ക്കുന്നതിന് വേണ്ടിയാണ് കൊണ്ട് തരുന്നത് അത് നല്ല രീതിയിൽ തന്നെ ഡിസൈനിൽ ഡിസൈനെക്കെ വെച്ച് നല്ല പാറ്റേണിൽ അടിച്ച് കൊടുക്കുന്നതിന് പരമാവധി ശ്രമിക്കാറുണ്ട് അതായത് വ്യത്യസ്തമായ പാറ്റേണ്കളിൽ അവർ കൊണ്ട് തരുന്നത് അനുസരിച്ചുള്ള പാറ്റേണിൽ അത് പറയുന്നത് അനുസരിച്ചുള്ള എന്നാ ഡിസൈനിൽ തയ്ച്ച് കൊടുക്കാനും നല്ല രീതിയിൽ അത് വർക്ക് ചെയ്ത് കൊടുക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട് പിന്നെ സാരീലെക്കെ ഇങ്ങനെ എംറോ എംബ്രോയിഡറി വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നതിനും കളറ് പ്രിന്റ് ചെയ്ത് പ്രിൻ അങ്ങനെ അടിച്ചു കൊടുക്കുന്നതിന് ഒക്കെ താല്പര്യം ഉള്ള കാര്യമാണ് അതൊക്കെ അങ്ങനെ പല പല ഡിസൈനുകൾ ഒക്കെ നല്ല സാരികളിൽ ഒക്കെ ഡിസൈനെക്കെ ഇട്ട് കൊടുക്കുന്നതിനും പിന്നെ ശ്രമിക്കാറുണ്ട് കൂടുതലും മെറ്റീരിയലില് മെറ്റീരിയലൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ വർക്ക്കളൊക്കെ പൂർത്തിയാക്കി നല്ല രീതി റ്റ് സ്റ്റിച്ച് തുണി തയ്ച്ച് കൊടുക്കുന്നതിന് പരമാവധി ശ്രമിക്കാറുണ്ട് അത് ആല് ആല അന്ന് ആ കാലത്തുള്ള മോഡലുകളിൽ മോഡലുകൾ എടുത്ത് നല്ല രീതിയിൽ തന്നെ അത് തയ്ച്ച് കൊടുക്കാനും ശ്രമിക്കാറുണ്ട് ആ കാലഘട്ടത്തിലെ മോഡലുകൾ മോഡലുകൾ നോക്കി അതൊന്നായി രീതിയിൽ തയ്ച്ച് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് ശ്രമിക്കാറുണ്ട് അങ്ങനെ കൂടുതൽ തുണിയെടുത്ത സാരി സാരികളിൽ പ്രിന്റ് ചെയ്യുന്നതും തുണികൾ സ് തയ്ച്ച് കൊടുക്കുന്നതും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കൂടുതലും നമ്മൾ നമ്മളുടെ കൈകൾ കൊണ്ട് തന്നെ എന്ന് തയ്ച്ച് കൊടുക്കുന്നതിനാണ് ശ്രമിക്കുന്നത് അതാത് പാ രീതിയിൽ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യ പ്രകാരം നല്ല രീതികളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറ് ഉണ്ട്